ഇതുവരെയുള്ള കാലക്രമേണത്തിലെ മാറ്റങ്ങളനുസരിച്ച് ടെലിഫോണിൻ്റെ പുരോഗത്തിലുണ്ടായ മാറ്റമെന്ന് പറയുന്നത് അതിപ്രസരമായിട്ട് അത് വേഗത്തില് നടന്നുകൊണ്ടിരിക്കുന്ന ഒന്ന് തന്നെയാണ് എന്തുകൊണ്ടാണെന്ന് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചുകഴിഞ്ഞാല് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു പ്രധാനഘടകമെന്ന് പറയുന്നത് പണ്ടത്തെ കാലഘട്ടത്തിലെ ആൾക്കാർക്ക് അല്ലെങ്കില് എൻ്റെ അപ്പനപ്പൂപ്പന്മാരുടെയൊക്കെ ചെറുപ്പത്തില് വിദേശത്ത് അല്ലെങ്കില് ദൂരെയായിരിക്കുന്നവരെ പോയി കണ്ട് അവരുടെ വിശേഷങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രമേ അവര് എന്തെടുക്കുന്നുവെന്നൊക്കെ അറിയുവാനായിട്ട് സാധിച്ചിരുന്നുള്ളൂ പ്രിയപ്പെട്ടരുടെ മരണവാർത്ത പലപ്പോഴും അവര് അറിഞ്ഞുവരുമ്പോഴേക്കും അടക്ക് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിരിക്കും കാരണം അവരുമായി ബന്ധപ്പെടുവാനുള്ള ബന്ധപ്പെടുവാനുള്ള ഒരു ഒരു മാർഗ്ഗം ഇവിടെ കണ്ടെത്താനായിട്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് അങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരുന്നത് പിന്നീടാണെങ്കില് ചെറിയ രീതിയിലുള്ള ലാൻഡ് ഫോണുകളുടെയൊക്കെ കടന്നുവരവുണ്ടായി ലാൻഡ് ഫോണുകൾ വന്നപ്പോഴാണെങ്കിലും എല്ലാ കുടുംബങ്ങളിലും ഫോണുകൾ എന്നുപറയുന്നത് നടപടിയുള്ളൊരു കാര്യമായിരുന്നില്ല മറിച്ച് ഒരു പ്രദേശത്ത് ഒരു വീട്ടില് ഫോൺ ഉണ്ടെങ്കില് ആ വീട്ടിലേക്കായിരിക്കും ആ ചുറ്റുപാടുമുള്ള എല്ലാ മനുഷ്യരുമായി ബന്ധപ്പെടുന്നവര് ഫോൺ കോളുകള് വിളിക്കുക അപ്പോഴേക്കും കുറേ കുട്ടികള് കുറേ കുട്ടികളൊക്കെയായി വിദേശത്ത് നിന്ന് പുറത്തൊക്കെ പോയി ജോലിയൊക്കെ സമ്പാദിക്കാനായിട്ട് തുടങ്ങി അപ്പം അവരെ വിളിക്കുമ്പോള് തങ്ങളുടെ വിശേഷങ്ങള് പറയുമ്പോള് ഈ വീടുകളിലേക്കാണ് അപ്പോള് ഓരോ ഫോൺ കോളുകളും ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് കാത്തിരിക്കുക ഒരു പ്രദേശം മുഴുവനുമെന്ന് വിചാരിക്കണം കാരണം അത് ആർക്ക് വേണ്ടിയുള്ള കോള് എന്തുകൊണ്ടുള്ള കോള് എന്നൊക്കെ ഒരു അത്ഭുതത്തോടുകൂടി ഒരു മൊബൈൽ ഫോണിനെ ഒരു മൊബൈൽ കോളിനെ പോലും നമ്മള് കാത്തിരുന്നൊരു കാലഘട്ടം പിന്നീട് ചെറിയ കീപാഡുകളൊക്കെ ഉപയോഗിച്ചുള്ള കൈ ഫോണുകളൊക്കെ വന്നു അപ്പോഴാണെങ്കിലും എല്ലാവരുമൊന്നും ഫോൺ ഉപയോഗിക്കുന്നില്ല ഒരു കുടുംബത്തില് ഒരു ഫോൺ എന്ന നിലയിലേക്കൊക്കെ കടന്നുവരുന്ന ഒരു പശ്ചാത്തലം അപ്പോഴാണെങ്കിലും ഫോണ് എന്ന് പറയുന്നതിനെ വളരെ എന്താണ് അത്ഭുതത്തോടെയും ഒരു ഒരു വലിയ വലിയ ഒരു വസ്തുവെന്ന രീതിയിൽ തന്നെയാണ് അതിനെ കണ്ടുകൊണ്ടിരുന്നത് പിന്നീട് മാറ്റങ്ങളുടെ കാലക്രമത്തില് സംഭവിച്ച ഒരു പുരോഗതിയെന്ന വണ്ണം സ്മാർട്ട് ഫോണുകള് കടന്നുവരികയുണ്ടായി സ്മാർട്ട് ഫോണുകള് കടന്നുവന്നപ്പോഴാണെങ്കിലും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുക വിദേശത്തായിരിക്കുന്നവര് അടുത്തായിരിക്കുന്നവര് എന്ന് എവിടെയള്ളവരെയാണെങ്കിൽ പോലും ഒരുമിച്ച് അടുത്തിരുന്ന് സംസാരിക്കുമ്പോഴുള്ള സ്വാതന്ത്ര്യത്തോട് കൂടി നമുക്ക് ഗൂഗിൾ മീറ്റുകൾ കൂടുവാനും അല്ലെങ്കിൽ വീഡിയോ കോളുകൾ വിളിക്കാനും വിദേശത്തായിരിക്കുന്നവരെ അവരപ്പോള് ഇരിക്കുന്ന അവസ്ഥയില് നോക്കികണ്ട് അപ്പോള് അടുത്തിരുന്ന് സംസാരിക്കും പോലെത്തന്നെ അവരെ നേരിൽ കണ്ടുകൊണ്ട് സംസാരിക്കുന്നത് പോലെ തന്നെ സംഭാഷണം നടത്തുവാനും അങ്ങനെ കോളുകള് എന്താണ് അവര് വിളിക്കുന്ന സന്ദേശങ്ങള് കുറേക്കൂടി എന്താണ് ആഴമുള്ളതാക്കുവാനൊക്കെയായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പം മൊബൈൽ ഫോണിൻ്റെ ആ ഒരു അതിപ്രസരം വന്നതോടുകൂടിയണ് ഒരു ജനതയ്ക്ക് അവരുടെ ഒരു ഒരു കാലഘട്ടത്തെ മുഴുവനും ഒരു ഒരു മാറ്റത്തിലേക്ക് പുരോഗതിയിലേക്കൊക്കെ കൊണ്ടുവരുവാനായിട്ട് സാധിച്ചത് ഈ കാലഘട്ടത്തില് പുരോഗതിയിലേക്ക് നോക്കുമ്പോള് അത് അതിപ്രധാനമായ ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിനെ ഇത്ര മനോഹരമാക്കുന്നതാണ് ഈ ചുരുക്കുന്നതും പുരോഗതിയിൽ നിന്ന് പുരോഗത്തിലേക്ക് കൈവരിക്കുവാനൊക്കെ ആയിട്ട് സാധിക്കുന്നതൊക്കെ ഈ ടെലിഫോൺ മേഖലയിലുണ്ടായ അതി സാധിക്കും മാത്രമല്ല ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ തുറകളിലൂടെ കടന്നുപോകുന്ന മനുഷ്യരെ സംബന്ധിച്ച് അവര് അവരുടെ ജീവിത നിയോഗങ്ങള് ജീവിത പ്രതീക്ഷകളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് മുന്നേറുമ്പോള് അവർക്ക് താങ്ങും തണലും ഹെൽപ്പുമൊക്കെയായിട്ട് കൂടെ നിന്ന് സഹായിക്കുന്ന ഒരു സുഹൃത്തിനെ പോലെയെന്ന വണ്ണം മൊബൈൽ ഫോൺ ഇന്ന് കൂടെയുണ്ട് എന്തെങ്കിലും സംശയങ്ങൾ ജീവിതത്തിൽ തോന്നിയാൽ അപ്പം തന്നെ ചോദിച്ചാൽ അതിന് കൃത്യമായ ഉത്തരങ്ങൾ നൽകുവാനും നമ്മുടെ പ്രിയപ്പെട്ടവരുമായിട്ടും തങ്ങളുമായി ബന്ധപ്പെട്ടവരുമായി കൂടുതൽ അടുപ്പവും സ്നേഹവും ബന്ധവും വളർത്തുവാനൊക്കെയായിട്ട് മൊബൈൽ ഫോൺ സഹായിക്കുന്നുണ്ട് എന്നുതന്നെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അപ്പം വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും ജോലി മേഖലയിലാണെങ്കിലും ആരോഗ്യ മേഖലയിലാണെങ്കിലുമൊക്കെ ഈ ഫോൺ ഇന്ന് വളരെയധികം സഹായകമായ ടെക്നോളജിക്കൽപരമായ ഒത്തിരിയധികം സഹായഹസ്തങ്ങൾ നീട്ടുന്നുണ്ടെന്ന് വേണം മനസ്സിലാക്കുവാനായിട്ട് മാത്രമല്ല ഒരു കാലഘട്ടത്തെ ഒരു ഒരു ഒരു ദേശത്തെ മാത്രമല്ല ഒരു ലോകത്തെ മുഴുവനും ഒരു കാലഘട്ടത്തിൻ്റെ മൊത്തം ഒരു വളർച്ചയാണ് നമ്മളവിടെ കാണുക ഒരു പ്രദേശത്തിൻ്റെയോ ഒരു വ്യക്തിയുടെയോ മാത്രം ഒരു ഉയർച്ചയോ വിജയമോ അല്ല നമ്മൾ കാണുക മറിച്ച് അറിവ് നേടുവാനും സമ്പാദിക്കുവാനുമൊക്കെയുള്ള മനുഷ്യൻ്റെ ജീവിതാവസ്ഥകളെ പരിഗണിച്ച് കൊണ്ടുതന്നെ കുറേക്കൂടി മറ്റുള്ളവരുമായിട്ടും ശാസ്ത്രവുമായിട്ടും ലോകവുമായിട്ടുമൊക്കെ ബന്ധപ്പെടുവാനും അപ്പോള് അങ്ങനെ അറിവ് നേടിക്കൊണ്ട് മുന്നോട്ട് പോകുവാനൊക്കെയായിട്ട് സാധിക്കുന്ന ഒരു സഹായകം തന്നെയാണിത് മറിച്ച് ഇപ്പോള് നമ്മള് നോക്കുമ്പോള് വീഡിയോ കോളുകളും വോയിസ് കോളുകളുമൊക്കെ നമ്മള് നോക്കുമ്പോള് ഇന്ന് നമ്മൾ എത്ര വിദൂരത്തായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെയും അടുത്തുനിന്നുകൊണ്ട് അവരെ നേരില് കാണുവാനും സംസാരിക്കുവാനും അവരുമായിട്ടൊക്കെ നല്ല സൗഹൃദങ്ങൾ പങ്ക് വെയ്ക്കുവാനുമൊക്കെയായിയിട്ട് നമ്മളെ ഈ മൊബൈൽ ഫോണ് നമ്മളെ സഹായിക്കുന്നുണ്ട് അപ്പം മൊബൈൽ ഫോണിൻ്റെ ഈ മാറ്റമെന്ന് പറയുമ്പോൾ ഫോട്ടോ എടുക്കാനും വീഡിയോ എഡിറ്റ് ചെയ്യാനുമൊക്കെ ഒരു കമ്പ്യൂട്ടറിന് ചെയ്യാൻ പറ്റുന്ന മിക്ക സാധ്യതകളും ഇന്ന് നമ്മുടെ മൊബൈൽ ഫോണുകളില് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടെന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം